ഞങ്ങളെ വീടിനടുത്ത് ഒരു പാറയുണ്ട് വലിയ പറയാണ് അതിൻ്റെ മോളിൽ ഒരു അമ്പലമുണ്ട് അമ്പലത്തിൽക്ക് നല്ല കുത്തനെയാണ് എന്നാലും ഞങ്ങൾ ആഴ്ച്ചയിൽ കയറലുണ്ട് എല്ലാവരും കാറ്റ് കൊള്ളാനും അതിനൊക്ക അങ്ങോട്ട് വരലുണ്ട് കുറേ ആൾക്കാർ വരും അതിൻ്റെ മോളിൽ അമ്പലം ഉണ്ട് അമ്പലത്തിൻ്റെ മതിലിൻ്റെ ഉള്ളിൽ ഒരു കിണറുണ്ട് പാറേൻറ്റ നന്ന മോളിലാണ് അതിലൊരു കിണറുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്ത് കാൽ കഴുകാൻ നീളത്തിലൊരു ചാല് പോലെയുണ്ട് അത് ആദ്യം അവിടെ അമ്പലത്തിൽ നമ്പൂതിരി വന്നിട്ട് പായസം ഒക്കെ ഉണ്ടാക്കിയപ്പോൾ അന്നൊന്നും അങ്ങനെയാരും അവിടെ കയറില്ല പേടി കൊണ്ട് എല്ലായിടത്തും നല്ല കാടാണ് പാറ അത്രയും ദേശത്ത് കുറേ സ്ഥലം ഉണ്ട് പാറേൻറ്റത് അമ്പലത്തിൻ്റെ വകയാണ് അതിൻ്റെ മോളിൽ പിന്നന്നെ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ പായസം ഉണ്ടാക്കാൻ നമ്പൂതിരി പയസം ഉണ്ടാക്കിയപ്പോൾ അത് ഉരുളിയിൽ അടി കരിഞ്ഞു കരിഞ്ഞപ്പോൾ അത്രയും ദൂരം താഴത്തേക്ക് ഇറങ്ങി വരണം അന്നൊക്ക താഴത്തുള്ളൂ വെള്ളം ആ വെള്ളം കൊണ്ട് പോയിട്ടാണ് ഇത്രയും ദൂരം പോയിട്ടാണ് പായസമൊക്കെ ഉണ്ടാക്കൽ അതിൽ ഈ നമ്പൂതിരി വെള്ളമൊക്ക കൊണ്ട് ചെന്നപ്പോഴേക്കും പായസം അടിയിൽ പിടിച്ചു അതിൽ നമ്പൂതിരിക്ക് ഈറ ദേഷ്യം വന്നിട്ട് ഉരുളി ഒറ്റ ഏർ എറിഞ്ഞു ആ എറിഞ്ഞ ഭാഗത്ത് ഇന്നൊരു കിണറാണായി കിണർ അതിൻ്റെ ചട്ടുകം കുറച്ച് ദൂരത്തേക്ക് എറിഞ്ഞു അവിടെ ഒരു ചട്ടുകം പോലെ കാൽ കഴുകാനുള്ള ഒരു നീളത്തിലൊരു ചാൽ പോലെയുണ്ട് അപ്പം അവിടെ ഉരുളിയും ചട്ടുകവും ഉരുളി കിണറുമായി ചട്ടുകം കാൽ കഴുകാനുള്ള ഒരു നീളത്തിലൊരു ഇതുമായി വേനൽക്കും വർഷത്തുമൊക്കെ വേനൽക്കും കൊടും വേനൽക്കും വയൽ നല്ലവണ്ണം വെള്ളം ഉണ്ടാവും കിണർ അപ്പോൾ പൂജക്കൊക്കെ ആ കിണറ്റിൽ നിന്നാണ് വെള്ളം എടുക്കൽ എല്ലാ പൂജകൾക്കും പായസം ഉണ്ടാക്കാനും എല്ലാ ഇതിനും അതിൻ്റെ മോളിന്നാണ് വെള്ളം എടുക്കൽ ആ വെള്ളം വേനൽക്ക് കൂടെ വറ്റില്ല അതേപോല തന്നെ ഉണ്ടാവും ഞങ്ങളെ വീട് അതിൻ്റെ താഴത്താണ് ഇവിടുള്ളവർ എല്ലാവരും ആഴ്ചയിൽ പോവും വൃശ്ചിക മാസത്തിലാണ് അവിടെ ഉത്സവം കാർത്തിക വിളക്ക് അന്ന് ഭയങ്കര ഉത്സവങ്ങളാണ് അവിടെ ദേവിയാണ് ദേവീൻ്റെ പിറന്നാളാണ് ദേവീൻ്റെ നാളാണ് കാർത്തിക അപ്പം വൃശ്ചികമാസത്തിലാണ് ദേവീൻ്റെ പിറന്നാൾ അന്ന് കാർത്തിക വിളക്ക് ആഘോഷിക്കും അന്ന് പാറ അത്രയും ഉയരത്തിലും അത്രയും വട്ടത്തിലായിട്ട് അത്രയും സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്നാലും ആ വൃശ്ചിക മാസത്തിൽ ആ പാറേന കാണില്ല ജനങ്ങളെ കൊണ്ട് രാവിലെ മുതൽക്ക് രാത്രി വരെയും അത്രയും ജനങ്ങളാണ് എല്ലാവരും വരും ഇപ്പോൾ മുസ്ലീങ്ങളായാലും ഹിന്ദുക്കളായാലും എല്ലാവരും ഭയങ്കര കാറ്റാണ് അവിടെ ഉച്ച തൊട്ട് ഉച്ചക്ക് നട്ടുച്ചക്കും കൂടി അതിൻ്റെ മോളിൽ കാറ്റാണ് അപ്പം എല്ലാവരും കാണാൻ വരും അവിടെ കാറ്റ് കൊള്ളാനായിട്ട് വരും എല്ലാവരും നല്ല രാസമാണ് അവിടെ ഞങ്ങളെ വീടൊക്കെ അതിൻ്റെ താഴത്ത് തന്നെയാണ് എല്ലാവരും പാറമേൽക്ക് വരിക